ആ നമ്മളെ കൂടുതലായിട്ട് സന്തോ സന്തോഷിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇപ്പോൾ എനിക്ക് കൂടുതലായിട്ട്ന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എൻ്റെ കുടുംബത്തെ നല്ല രീതില് നോക്കുമ്പോഴാണ് എനിക്ക് നല്ല രീതിലുള്ളൊരു സന്തോഷോം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ കുടുംബത്തെ ആണ് ഞാൻ കൂടുതലായിട്ടും നോക്കുന്നത് ഇപ്പം ഉമ്മ ഉപ്പ പെങ്ങള് ഇവരൊക്കെയായിരുന്നു എൻ്റെയൊരു സന്തോഷമെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അപ്പം ഞാന് നല്ല രീതിലുള്ളൊരു ആളായത് കൊണ്ടും എനിക്ക് കുടുംബത്തെ വിട്ട് നിൽക്കാൻ പറ്റാത്തകൊണ്ടോക്കെയാണ് ഞാൻ കൂടുതലായിട്ടും ഇവിടെ തന്നെ ജോലി ചെയ്തിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഗൾഫിലൊക്കെ കുറെ വെക്കൻസികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനങ്ങനെ പോയിട്ടില്ല കാരണം കുടുംബത്തെ വിട്ടിട്ട് എനിക്ക് പോകാൻ അങ്ങനെ വലിയ ഇഷ്ടമില്ലായിരുന്നു അപ്പം കുടുംബമാണ് എൻ്റെ എല്ലാം അപ്പം അവരാണ് എനിക്ക് എൻ്റെ സന്തോഷവും എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ എനിക്കതാണ് ഏറ്റവും വലിയ സന്തോഷം പിന്നെ എനിക്ക് വേറെ സന്തോഷമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഡ്രൈവിങ്ങൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇടക്കിടക്ക് ഓരോ നൈറ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോകാറുണ്ട് അപ്പം അതൊക്കെയാണ് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമെന്ന് പറയാം